അതെ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി വിളിച്ചതാണ് ആ ടൗൺ ഏരിയ വേണം ആ

ടൗണിൽ തന്നെയാണ് അതെ എനിക്കൊരു ആ ടൗണിൽ വേണം നല്ല ബസും അങ്ങനെ സ്കൂളെല്ലാം അടുത്തുള്ള ആ ആ അങ്ങനെ വേണ്ട

വീട് ഒരു രണ്ട് നിലേൻ്റെ വീട് അങ്ങനെ

ട്രെഡിഷണൽ മോഡൽ മതി

സ്ഥലം സ്ഥലം വേണ്ട വീടിൻ്റെ അത് മാത്രം മതി ഒരു മൂന്ന് ബെഡ്റൂം ആയിട്ട്

ആ ആ ഗാർഡനിങ്ങിന് അപ്പോൾ എത്ര സെൻറ്റ് വരും നോർമലായിട്ട് നോക്കുന്ന സമയത്ത്

അൽ ആ അപ്പോൾ അങ്ങനെ നോക്കാം കുറച്ച് സ്ഥലമുള്ള വീട് നോക്കാം അപ്പോൾ നമുക്ക് ഗാർഡനിങ്ങും അങ്ങനെ ചെയ്യാലോ ആ എല്ലാ റൂമിലും അറ്റച്ച്ഡ് ആയിട്ട് ബാത്രൂം അങ്ങനെയല്ലേ

ആ സ്കൂളും

ആ ആ റോഡിൻ്റെ സൈഡ് തന്നെ അല്ലേ അല്ലേ ഉള്ളിലോട്ട് എങ്ങനെ അങ്ങനെയുണ്ടോ ഓക്കേ ഓക്കേ ആ അപ്പോൾ അങ്ങനെ നോക്കാം അഡ്വാൻസ് നോക്കിയിട്ട് ബാക്കി വീട് നോക്കിട്ട് ബാക്കി ബാലൻസ് തന്നാൽ പോരെ

അപ്പോൾ ഞങ്ങള് ആ നോക്കിയിട്ട് ചെയ്താൽ പോരെ

ഫ്രീ ആകുമ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്യാട്ടോ

താങ്ക്യു